ഹലോ സ്കൂളിലെ പ്രിൻസിപ്പളല്ലേ ആ എൻ്റെ അച്ഛന് എനിക്കൊരു ട്രാൻസ്ഫറ് വേണം എൻ്റെ അച്ഛന് ചെന്നൈയിലോട്ട് സ്ഥലം മാറ്റം കിട്ടി എനിക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റൊന്ന് വേണമായിരുന്നു സാർ ടീച്ചർ അതിന് ഞാൻ എന്തൊക്കെ കൊണ്ട് വരണം പിന്നെ അത്യാവശ്യമായിരുന്നു അവിടെ കുറച്ച് ഫീസടക്കാൻ ഉണ്ട് ഇല്ല

ആ എൻ്റെ അച്ഛനങ്ങോട്ട് ട്രാൻസ്ഫറായി അപ്പോൾ കുടുംബസമേതം ഞങ്ങളെല്ലാവരും പോവുകയാണ് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോവുകയാണ് ഇപ്പം പൈസ അടക്കാൻ ഇല്ല ഞാൻ പിന്നെ കൊണ്ട് വന്ന് അടക്കാം ടീച്ചർ ചെന്നൈയിൽ

ആ അപ്പോൾ കൊണ്ട് വരാം ടീച്ചർ ഞങ്ങൾ കൊണ്ട് വന്നാൽ തരുമല്ലോ ഇനി വേറെ സ്കൂളിൽ ചെന്ന് ചേരുന്നതിന് വേറെ പ്രശ്നം ഒന്നും ഇല്ലല്ലോ ടീച്ചർ ആ ആ ടി സി എല്ലാം കൊണ്ട് ചെന്നാൽ അവിടെ അഡ്മിഷൻ കിട്ടും അല്ലേ ടീച്ചർ ഞാൻ ടീച്ചറേ എനിക്കിവിടെ സ്കോളർഷിപ്പൊക്കെ കിട്ടീട്ടുണ്ട് അവിടെ കിട്ടുമോ ടീച്ചർ സ്കോളർഷിപ്പൊക്കെ ടീച്ചറേ എനിക്കിവിടുന്ന് പോവുന്നതിന് നല്ല വിഷമം ഉണ്ട് പക്ഷേ രണ്ട് കൊല്ലം കഴിഞ്ഞെങ്കിൽ ഞാൻ തിരിച്ച് വരും ടീച്ചർ അപ്പോൾ എന്നെ ഇവിടെ സ്വീകരിക്കുമോ ടീച്ചർ എന്നാൽ ആ ശരി കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ശരി ടീച്ചർ താങ്ക് യൂ